അ അതെ പറഞ്ഞോളൂ

അ ഉണ്ട് ഗോൾഡ് ലോൺ ഉണ്ട് അതെ അ അപ്പോൾ എത്ര പവൻ ഉണ്ട് അഞ്ച് പവൻ ആണ് ഉള്ളത് ലെ രണ്ട് ലക്ഷം രൂപ അ ഒരു പവന് നമ്മൾ മുപ്പത്തി ഏഴ് ഇരുനൂറ് ആണ് കൊടുക്കുന്നത് ഇപ്പത്തെ വില അനുസരിച്ച് അത്രേ കൊടുക്കാൻ പറ്റുള്ളൂ അത് കൊണ്ടാണ് അല്ല വില കൂടുവാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ നാളെ ആണ് വരുന്നത് എങ്കിൽ നാളെ ചിലപ്പോൾ വില കൂടുവാണെങ്കിൽ അതിന് അനുസരിച്ച് വരും അപ്പോൾ വില കുറയുവാണെങ്കിൽ അതിന് അനുസരിച്ച് കുറയും അങ്ങനെ ആണ് വരുക പിന്നെ സ്വർണം ട്വൻറ്റി ടു കാരറ്റ് ആണോ അതോ ഇപ്പഴത്തെ ണയൻ വൺ സിക്സ് ആണോ അ ഓക്കേ ട്വന്റ്റി ടൂ കാരറ്റ് ആണെങ്കിൽ കുറച്ച് കൂടെ ക്യാഷ് കുറയും കാരണം അത് ഓൾഡ് ആണല്ലോ ഇപ്പോൾ ന്യൂ മോഡൽ ആണ് ഇപ്പോൾ വരുന്നത് അതെ പിന്നെ വേറെ എന്താ പറയുക ഈ സ്ഥലവോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ

അ അ ഓക്കേ അല്ല അത് ആധാരം ഇല്ലെങ്കിലും കുഴപ്പില്ല നമുക്ക് നികുതി ചീട്ട് ഉണ്ടോ അതെ ഉണ്ടെങ്കിൽ അതും അത് ഉണ്ടെങ്കിൽ നമുക്ക് കെസിസി ലോൺ എന്ന് പറയും അതായത് കാർഷിക ലോൺ എന്ന് പറയും എന്താ പറയുക ഇപ്പോൾ നമ്മൾ ഇപ്പൊ സ്വർണം ഇവിടെ കൊണ്ട് വന്ന് വെച്ച് കഴിഞ്ഞാല് നാല് ശതമാനം പലിശയ്ക്ക് കാർഷിക ലോൺ തരാൻ പറ്റും അപ്പോൾ ആ ഇതായിരിക്കും കുറച്ച് കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് അപ്പൊ നിങ്ങക്ക് അത്യാവശ്യം ഒരു അഞ്ച് ലക്ഷം രൂപ വേണെങ്കിൽ അതിനകത്തുന്ന് എടുക്കാം ഇപ്പം പത്ത് പതിനഞ്ച് പവൻ ഉണ്ടെങ്കിൽ നമുക്ക് അഞ്ച് ലക്ഷം രൂപയോ പത്ത് ലക്ഷം രൂപ വരെ നമുക്ക് തരാൻ പറ്റും മറ്റേത് ആവുമ്പോ ഗോൾഡിന് അനുസരിച്ചുള്ള എമൗണ്ട് മാത്രമേ കിട്ടുള്ളൂ പിന്നെ വേറെ ഈ കെസിസി ലോണാ അത് നാല് ശതമാനം നിരക്കിലാണ് കൊടുക്കുക ഗോൾഡിൽ അത് ഏഴ് ഏഴ് ശതമാനം ഇതായിരിക്കും കുറച്ച് കൂടെ ബെറ്റർ ആയിട്ട് മൂന്ന് ശതമാനം കുറവ് ഉണ്ടാവും വർഷം വർഷം അടച്ചാൽ മതി അത അങ്ങനെ ആണെങ്കിൽ നാളെ ഒന്ന് വരുവായിരുന്നെങ്കില് നാളെ നികുതി ചീട്ടും ഗോൾഡും കൂടെ കൊണ്ട് വരുവാണെങ്കില് നാളെ തന്നെ ക്രെഡിറ്റ് നിങ്ങൾക്ക് കിട്ടും അ അതിലെങ്കില് ഇല്ല ആവശ്യല്ല ആവശ്യല്ല പിന്നെ അതിന് പലിശ കൂടുതൽ ആയിരിക്കും അത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സ്കീം പറഞ്ഞത് കാർഷിക ലോൺ ആയിട്ട് അതിന് പലിശ കൂടുതൽ ആയിരിക്കും അതാണ് പ്രശ്നം ഉള്ളത് ഇത് ആണെങ്കിൽ നാല് ശതമാനമേ പലിശ ഉണ്ടാവുള്ളൂ ഇപ്പൊ രണ്ട് ലക്ഷം രൂപ ആണെങ്കിൽ എടുക്കുന്നത് എട്ട് രൂപ എട്ടായിരം രൂപേ പലിശ ഉണ്ടാവൂ മറ്റേത് ആകുമ്പോൾ അതിലും കൂടും അ അത് കൊണ്ടാണ് ഓക്കേ അങ്ങനെ ആണെങ്കിൽ നാളെ ഒന്ന് വന്നോളൂ എന്തായാലും നികുതി ചീട്ട് എടുത്തോളൂ നമ്മക്ക് ആ സ്കീം ഉണ്ടോ എന്ന് നോക്കി നോക്കാം ഓക്കേ മാഡം എന്നാ നാളെ വന്നോളൂ ട്ടോ